ഇൻഷുറൻസ് ക്ലെയ്മ്കളെ പറ്റി അതൊന്ന് പറയാൻ വേണ്ടിയാണ് അതിൻ്റെ മരണസർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കാൻ പറഞ്ഞു അതിൻ്റെ പകർപ്പ് ആ അത്കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുവാണ് അതിനെന്ത് ചെയ്യണമെന്ന് ആ അങ്ങനെ കൊടുക്കണോ ആ പഞ്ചായത്തിൽ ചെന്ന് കൊടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചില്ല ആ അത് വാങ്ങിച്ച് അതിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഓ ശരി എന്നാൽ ഓക്കെ താങ്ക്യൂ